ഹലോ ഇത് ലക്ഷ്മി ക്യാബ് സർവീസ് അല്ലേ ശരി ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ നമ്മള് നാല് ഫ്രണ്ട്സ് ചേർന്ന് ഒരു മൂന്നാർ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയൊരു കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ ശരി ഇപ്പോൾ ഏതെല്ലാം കാർ ആണ് ഇപ്പോൾ അവിടെ ഇതായിട്ടുള്ളത് റെൻറ്റിന് കൊടുക്കുന്നത് ഓക്കേ ഈ മാരുതി സ്വിഫ്റ്റിന് ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പെർ ഡേ ആണോ വരുന്നത് അല്ലങ്കിൽ കിലോമീറ്റർ വെച്ചിട്ടാണോ വരുന്നത് ഓ രണ്ട് വരുന്നുണ്ടോ ഓക്കേ പെർ ഡേ എത്രയാണ് വരുന്നത് ഓ രണ്ടായിരം രൂപ ആ ആ ശരി അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാട്ടും കുറച്ചും കൂടി കുറഞ്ഞ വില ഏതിനാണ് വരുന്നത് മാരുതി സ്വിഫ്റ്റിനല്ലാതെ ഓ ഡസ്റ്റൺ ഗോ അതെങ്ങനെയാണ് കാർ ഫോർ സീറ്റർ ആണോ ആ ഓക്കേ അപ്പോൾ ഈ ഫോർ സീറ്റർ അല്ലാതെ ഒരു സിക്സ് സീറ്റർ ഉള്ള വരുന്ന കാറിന് നല്ലക്ക് പൈസ കൂടുമോ ഇല്ല നാലായിരം രൂപയേ വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഓക്കേ ഡാറ്റ്സൻ ഗോ തന്നെ ബുക്ക് ചെയ്തോളൂ നമുക്കൊരു നാല് ദിവസത്തെ ട്രിപ്പ് ആണ് ഉള്ളത് ഇവിടുന്ന് പാലക്കാട് തൊട്ട് മൂന്നാർ വരെ അവിടുന്ന് സ്റ്റേ ചെയ്ത് അങ്ങനെ കറങ്ങി അങ്ങനെ നാല് ദിവസത്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തം പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ഓ ഓൺലൈൻ ആണ് ഓക്കേ ഓൺലൈൻ ചെയ്യാമല്ലേ അപ്പോൾ കാർ എങ്ങനെയാണ് കണ്ടീഷൻ ഓക്കേ ആണോ മൈലേജ് എല്ലാം ഓക്കേ ആണോ ഓ ഓക്കേ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ഡാറ്റ്സൻ ഗോ തന്നെ ബുക്ക് ചെയ്തോളു ആ ശരി ആ നാല് ദിവസത്തേക്ക് മതി മൂന്നാർ പോയ് വരാൻ ഓക്കേ